ആ ആ ഞാൻ വിളിച്ചത് ഇവിടെ എവിടെയെങ്കിലും ഈ പരിസരത്ത് എവിടെയെങ്കിലും വീട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു

ഒരു ചെറിയ വീടും ആയിരുന്നു ഞങ്ങൾ നോക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് താല്പര്യം എനിക്ക് കൂടുതൽ താല്പര്യം ഈ പണിക്കൻകുടി ഭാഗത്തു തന്നെയായിരുന്നു പണിക്കൻകുടിയിലാണ് എൻ്റെ ഹസ്ബൻറ്റും പേരന്റ്സും ഒക്കെ ഉള്ളത് പണിക്കൻകുടിയിൽ ആയിരുന്നു അപ്പോൾ ഞങ്ങളിവടെ കോട്ടയത്ത് ജോലിയായത് കാരണം ഇവിടെ വന്ന് വീട് മേടിക്കാം എന്ന് ഓർത്തുകൊണ്ടായിരുന്നു ആ ഈ ഭാഗത്ത് എവിടെ എങ്കിലും ഉള്ളതായിട്ട് അറിയാമോ മുരിക്കാശ്ശേരി ഭാഗത്തേക്ക് നോക്കാൻ താല്പര്യമില്ല പണിക്കൻകുടി ഭാഗം തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം അതേയ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഇങ്ങ് വന്നപ്പോൾ ഈ പണിക്കൻകുടി പള്ളിയുടെ അപ്പുറത്ത് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും കണ്ടായിരുന്നു അതൊന്ന് അന്വേഷിക്കാമോ ക്കവടങ്ങ് ബോർഡെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് അന്വേഷിക്കാമോ

ആ ഞങ്ങൾ ഒന്നുപോയി കാണാൻ സമ്മതിക്കുമോ കാണാൻ പറ്റുമായിരിക്കുമോ ആ വീടൊന്ന് പോയി

പാറത്തോട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പാറത്തോട് താല്പര്യമില്ല പണിക്കൻകുടിയാണ് കൂടുതൽ ഇഷ്ടം ഞങ്ങളുടെ പാരൻറ്റ്സൊക്കെയാണേലും പണിക്കൻകുടിയിൽ ഉള്ളത് കാരണം പണിക്കൻകുടിയോട് ആയിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം പണിക്കൻകുടിയിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആയിരുന്നു നല്ലത്

ഇല്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ വീടുണ്ടാക്കിയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് വേ

സ്ഥലം നമുക്ക് പത്ത് സെന്റ് ആണേലും സ്ഥലം നമുക്ക് പത്ത് സെന്റ് ആണേലും മതി പക്ഷേ വഴി സൗകര്യവും വെള്ളവും നമുക്ക് മെയിൻ ആയിട്ട് അത്യാവശ്യമാണ്

ഏ എന്നാൽ പിന്നേ ആ അവരുടെ അടുത്ത് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ചോദിച്ച് നോക്കു കേട്ടോ എന്നിട്ട് വേണം എനിക്ക് നിങ്ങൾ സംസാരിച്ച് നോക്കിയിട്ട് വേണം എനിക്ക് വരാൻ ഒന്ന് അന്വേഷിച്ച്